ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വിശുദ്ധ ബൈബിളാണ് കാരണം ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ആശ്വാസം അല്ലെങ്കിൽ ഒരുപാട് സമാദാനമൊക്കെ ലഭിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോഴാണ് അതിലെ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ പ്രയാസമുണ്ടാകുമ്പോൾ ഒരു ബുന്ധിമുട്ട് അനുഭവിക്കുമ്പൊഴ് ആത്മാർത്ഥമായി വിഷമാവസ്ഥയോടെ തീഷ്ണതയോടെ വായിക്കുമ്മ്ഴ് ഓരോ വചനങ്ങളിലൂടെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിന് സമാദാനം നൽകുന്ന സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് വചനങ്ങൾ നമുക്ക് ലഭിക്കും വചനമായി അദ്ധ്വാനിക്കുന്നവന് സുഖനിദ്ര ലഭിക്കും നമ്മളെ എത്ര മാത്രം അദ്ധ്വാനിച്ചു നമ്മൾ ഒരു ആശ്വാസം കിട്ടുന്ന ആ വചനമാണ് നമ്മുടെ ബൈബിൾ ബൈബിൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നതിന് കുറേ കാര്യങ്ങളൊണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേദന അനുഭവിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ സമാശ്വാസം കണ്ടെത്തുന്നത് അല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിലുള്ള തിരുവചനങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ബൈബിളിൽ പറയുന്നതെല്ലാം നമുക്ക് ഒരൂ മനസ്സിന് ബുന്ധിമുട്ടുണ്ടാകുമ്പോൾ പ്രയസമുള്ള പ്രതിസന്ധി കടന്നു വരുമ്പോൾ ബൈബിളിൽ ആത്മർഥമായി ഹൃദകരമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊണ്ട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും അത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമായിട്ട് നമുക്ക് അതിൽ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് വേദനിക്കുന്നവർക്കും അദ്ധ്വാനിക്കുന്നവരും നിങ്ങളുടെ അടുത്തേയ്ക്ക് വരുന്നുണ്ട് വചനം കടന്നു വരുമ്പോൾ നമ്മളെ എത്ര മാത്രം ബുന്ധിമുട്ട് അനുഭവിച്ചാലും കഷ്ടപ്പാട് അനുഭവിച്ചാലും ഈ വചനം നമക്ക് ആശ്വാസം നൽകുന്നു നമുക്ക് സമാധാനം നൽകുന്നതാണ് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസം വരുമ്പം നമ്മൾ വായിച്ച ഭാഗം പിന്നെയും പിന്നെയും പുതിയ പുതിയ സന്ദേശങ്ങൾ നമുക്ക് അതിനകത്ത് ലഭിക്കുവാനായിട്ട് സാധിക്കും സാധിക്കുന്നുണ്ട് ഓരോ ദിവസത്തിലും നമുക്ക് പുതിയ പുതിയ സന്ദേശം ലഭിക്കയാ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ ക്രമം എന്തെല്ലാമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന് മനസിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്ന് ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ പോലും ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരിക്കുന്നത് കൊണ്ട് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നതാനതാ സാഹചര്യങ്ങളക്കെ മനസ്സിലാക്കി നമുക്ക് അതിൽ നിന്ന് നമുക്ക് വരാനിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ഒരു അനുഗ്രഹങ്ങളൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടും നമുക്ക് അത് രക്ഷയിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് ഹൃദയത്തിന് ആസ്വാദ്യകരമാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വചനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവർ പങ്കുകൊള്ളും നമുക്ക് സന്തോഷകരമയിട്ട് നമ്മൾക്ക് സന്തോഷം നമുക്ക് ഒരു ആനന്ദ സംതൃപ്തി കിട്ടുന്നതാണ് ബൈബിളിലെ വചനങ്ങൾ രക്ഷയിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുമായിട്ട് നമുക്ക് ആരോഗ്യവും ഉണർവും ഉൻമേഷവുമൊക്കെ നൽകുന്നതാണ് ഈ വചനങ്ങൾ ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ പുതിയ പുതിയ സന്ദേശങ്ങൾ പുതിയ പുതിയ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്നു പുതിയ പുതിയ സന്ദൃശങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ വചനങ്ങൾ ബൈബിളാണ് ഞാൻ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ആശ്വാസം വരും ഈ ബൈബിളിലെ വചനങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസാം നല്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും വായിക്കാൻ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും വിശുദ്ധ ബൈബിളിനെയാണ് എനിക്ക് സന്തോഷവും സമാധനവും സ്നേഹമൊക്കെ നമ്മളിൽ വന്നു നിറയും ദൈവ സ്നേഹത്താൽ നിറയുവാൻ പര സ്നേഹത്താൽ നിറയുവാൻ മറ്റുള്ളവരിലേക്ക് യേശു ഈശോയേ അടുപ്പിക്കുവാനായിട്ട് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്